അഞ്ച് രണ്ട് രണ്ടായിരത്തി പത്ത് ഒമ്പത് ആറ് രണ്ടായിരത്തി പതിനാല് എട്ട് ഏഴ് രണ്ടായിരത്തി പതിനാറ് രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനാല് നാല് ആറ് രണ്ടായിരത്തി പതിനേഴ്